ആ പറഞ്ഞോളൂ

ഓക്കെ ഓക്കെ അപ്പം കാറ്ററിംഗ് സർവീസ് ഞങ്ങൾ ഇന്നാണോ പ്രതീക്ഷിക്കണത് ഓക്കേ അപ്പം ഓക്കെ നമ്മുടെ കാറ്ററിംഗിൻ്റെ ഫുഡ് മെനു മെയ്നായിട്ടും നാല് കാറ്ററിംഗ് ഏറിയാണ് വരുന്നത് പ്ലേറ്റിന് ഫൈ ഹൺഡ്രഡ് തൊട്ട് സ്റ്റാട്ടിംഗ് വരുന്നുണ്ട് പ്ലേറ്റിന് സിക്സ് ഹൺഡ്രഡ് തൊട്ട് സ്റ്റാട്ടിംഗ് വരുന്നുണ്ട് പിന്നെ തൗസൻഡ് മുന്നിലോട്ടുള്ള രണ്ട് പ്ലേറ്റ്സാണ് ഒരെണ്ണം തൗസൻഡും തൗസൻഡ് ഫൈ ഹൺഡ്രഡും ഏതാണ് താങ്കൾക്ക് വേണ്ടത് ഒന്ന് പറയാമോ ആ ഓക്കെ ഫൈ ഹൺൻ്റ പ്ലേറ്റ് വരുന്നത് എത്ര ആൾക്കാർ കാണുമെന്നറിയാമോ അറ്ന്നൂറ് ഓക്കേ അറ്ന്നൂറ് പ്ലേറ്റ് ഓക്കെ അറ്ന്നൂറ് പ്ലേറ്റ് ഫൈ ഹൺഡ്രഡ് വെച്ച് ഓക്കേ എന്നത്തേക്കാന്ന് പറയാമോ അടുത്ത തിങ്കളാഴ്ച ഓക്കെ നിങ്ങൾക്ക് ഇന്ന് കാറ്ററിംഗിൻ്റെ ഫുഡ് കാറ്ററിംഗിന് വെഡ്ഡിംഗ് കഴിഞ്ഞിട്ടുള്ള ആഫ്റ്റർ ഫുഡ് മാത്രം മതിയോ അതോ താങ്കൾക്ക് മറ്റ് വെൽക്കം ഡ്രിങ്ക് സ്റ്റാട്ടറ് അങ്ങനെ അതൊക്കെ സെപ്പറേറ്റ് റേറ്റാണ് വരുന്നത് അപ്പോൾ അത് വേണോ അത് ഉൾപ്പെടുത്തണമോന്ന് പറയുമോ

ഓക്കെ അപ്പം മെയ്നായിട്ടും ഫുഡിന് ഞാൻ പറഞ്ഞല്ലോ ഫൈവ് ഹൺഡ്രഡ്ൻ്റ പ്ലേറ്റ് താങ്കൾ സെലക്റ്റെ ചെയ്തു അപ്പം സ്റ്റാട്ടപ്പിനും ബാക്കി ഫുൾ എമൗണ്ട് അങ്ങനെ വരുമ്പോഴ്ത്തേനും സിക്സ് ഹൺഡ്രഡ് വെച്ചിട്ട് നമ്മൾ ഒരു മെയ്നായിട്ടും ജ്യൂസ്സ് നമ്മൾ വൈൻസൊക്ക വെക്കുന്നുണ്ട് ഫ്രൂട്ട്സ് വെക്കുന്നുണ്ട് അപ്പം അങ്ങനെ എല്ലാം കൂടൊരു കോസ്റ്റ് നമ്മൾ ഒരാളിൽ നിന്ന് കോസ്റ്റ് പ്രതീക്ഷിക്കുന്നൊരു ടൂ ഹൺഡ്രഡ് റുപ്പീസാണ് ഒരാളിൽ നിന്ന് നമ്മൾ നോക്കുന്നത് അപ്പോൾ അവർക്ക് സ്റ്റാട്ടപ്പ്ൽ അതും ഫ്രൂട്ട്സും ജ്യൂസു എല്ലാം ഇങ്ങനെ ഒരാളിൽ കൂട്ടുമ്പോൾ തന്നെ ഇരുന്നൂറ് രൂപ അപ്പം ഇരുന്നൂറ് രൂപ വെച്ച് അറുന്നൂറ് പേർക്കും പിന്നെ അഞ്ഞൂറ് രൂപയുടെ പ്ലേറ്റ് അപയ്ക്ക് അങ്ങനാണ് വരുന്നത് അപ്പം ടോട്ടൽ കോസ്റ്റ് താങ്കൾ ഈ വാട്സപ്പ്ലൊരു ഹായ് ഇടുവാണെങ്കിൽ നമ്മൾ ഒന്ന് മെസ്സേജ് ചെയ്യാം പിന്നെ താങ്കളുടെ മറ്റ് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കാറ്ററിംഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഫുഡ് അഡീഷ്നലായിട്ടിപ്പം നമുക്ക് ഇപ്പം മന്തി വരുന്നുണ്ട് അങ്ങനെന്തേലും ഇത് നോർമൽ റൈസ് ഫ്രൈഡ് റൈസങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പറയാൻ അല്ലാതെ നമുക്ക് സ്പെഷ്യലായിട്ട് മന്തി റൈസ് അങ്ങനെ പുതിയ അഫ്ഗാനി ചിക്കൻ അങ്ങനെ പുതിയ പുതിയ ഐറ്റങ്ങൾ വരുന്നുണ്ടപ്പം അത് താങ്കൾക്ക് ഉവ്വ് വേണമെങ്കിൽ അത് മെൻഷൻ ചെയ്യാം നമ്മുടെ താങ്കൾക്ക് വേറെ വേറെ എന്തെങ്കിലും പ്രത്യേക സജഷനുണ്ടെങ്കിൽ താങ്കൾക്ക് അത് പറയാം അങ്ങനെ ഓ എല്ലാ കാര്യങ്ങൾ ഒന്ന് ഡീറ്റെയ്ലായിട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഏതൊക്കെ രീതിയിൽ താങ്കൾക്ക് നമ്മുടെ സർവീസെത്തിക്കണമോ നമ കറക്റ്റായിട്ട് മനസ്സിലാകും വേറെ എന്തേലും ഉണ്ടായിരുന്നു നമ്മൾ അഡീഷ്നലായിട്ട് നമ്മൾ അഡീഷ്നലായിട്ട് കാറ്ററിംഗ് ഇതിന് പുറമേ ഡെക്കറേഷൻ വർക്കൂടെ ചെയ്യുന്നുണ്ട് അതായത് ടേബിൾൽ പ്രത്യേക ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് അപ്പം അത് താങ്കളുടെ ഇവൻ്റ് കോഡിനേറ്റ് ചെയ്യണോ അതോ ഞങ്ങൾക്ക് തരുവാണോന്ന് പറയാമോ ഓക്കെ ആ ഇവൻ്റ് അപ്പോൾ ഓ അപ്പം അതിന് റേറ്റ് അതിൻ റേറ്റ് വരുന്നത് പെർ ടേബിള് ഹൺഡ്രഡാണ് അപ്പം അതും കൂടെ ഫിക്സ് ആ എന്നാൽ മെയ്നായിട്ടും ഹൺഡ്രഡ് പേർക്കെന്ന് പറയുമ്പോഴ്ത്തേനൊരു ടൂ ഹൺഡ്രഡ് ടേബിൾസിൽ മിനിമ വരും അപ്പം അങ്ങനെ നോക്കുമ്പോഴ്ത്തേന് ടൂ ഹൺഡ്രഡ് ടേബിൾസിന് ഹൺഡ്രഡ് വെച്ചായിരിക്കും വരുന്നു അത് ഞാൻ ഡീറ്റെയ്ലായിട്ട് വാട്സപ്പിൽ മെൻഷൻ ചെയ്യാം അപ്പം താങ്കൾക്ക് ഇത്രയും മതിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വേറെ എന്തെങ്കിലും

എങ്കിൽ ഫോണല്ലേ അത് അപ്പം നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലോഫറായിട്ട് വരുന്ന ചില സാധനങ്ങൾ അത് നമ്മൾ ഓഫർ പ്രൈസിൽ അഡീഷ്നലായിട്ട് ആഡ് ചെയ്തോളം അതിനെ കുറിച്ച് ഇപ്പം മെൻഷെൻ ചെയ്യുന്നില്ല കാരണം അതിനെ കുറിച്ച് ഡീറ്റെയ്ലായിട്ടുള്ള ഒരു കൗണ്ടെടുക്കണം അത്കൊണ്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് താങ്കളെ ഞാൻ വാട്സപ്പി കോൺടാക്റ്റ് ചെയ്തോളാം താങ്കളുടെ ഡീറ്റെയ്ൽസും ഫുൾ ബഡ്ജറ്റും താങ്കൾക്ക് കാറ്ററിംഗിൽ എന്തൊക്കെ സർവീസ് അഡീഷ്നലായി വേണ്ടെന്നും ഇതിന് പുറമേ എന്തൊക്കെ സർവീസ് അഡീഷ്നലായി വേണ്ടെന്ന് പറ വേണ്ടെന്നുള്ളത് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി വേറൊന്നും ഇല്ല അപ്പോൾ ഇത്ര ഉള്ളല്ലോ ഓക്കെ ഓക്കെ താങ്ക് യൂ താങ്ക് യൂ